പണ്ടത്തെ കാലഘട്ടത്തെ അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബോളിവുഡിലായാലും ടോളിവുഡിലായാലും ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിലും ഒരുപാട് ഫാഷൻ ട്രെൻഡുകൾ വന്നിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഒരുപാട് പണ്ടത്തെ നാടൻ വേഷങ്ങളൊന്നും തന്നെ ഇപ്പം അപൂർവ്വങ്ങളിൽ അപൂർവ്വമായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പം എല്ലാവരും ഇപ്പം മോഡേൺ ലുക്കിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഈ വസ് വസ്ത്രധാരണ രീതിയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഇപ്പം നാടൻ രീതി കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ പണ്ടത്തെ സിനിമകളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും പ്രത്യേകിച്ചും നമ്മുടെ മഞ്ചു വാര്യരും അതുപോലെ കാവ്യം മാധവൻ മീരാ ജാസ്മിൻ എന്നു തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ നാടൻ പണ്ടത്തെ എന്താ പറയേണ്ടത് കസ്തൂരിമാൻ എന്നു പറഞ്ഞ സിനിമകളും അതുപോലെ തന്നെ അനന്ദഭദ്രം മിഴി രണ്ടിലും പിന്നെ നമ്മുടെ മഞ്ചുവാര്യർ അഭിനയിച്ചിട്ടുള്ള കണ്ണെഴുതി പൊട്ടും തൊട്ടും കളിപ്പാട്ടം സിനിമകളിലൊക്കെ നല്ല നാടൻ വേഷങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് അപ്പം അങ്ങനെയുള്ള വസ്ത്രങ്ങളൊന്നും ഇപ്പം നമ്മളിൽ നിന്ന് അന്യമായി പൊയ്ക്കൊണ്ടിരിക്കുക ആരും തന്നെ സെറ്റ് മുണ്ട് ഉടുക്കാനോ അല്ലെങ്കിൽ പ പട്ടുപാവാട ഇടാനോ അല്ലെങ്കിൽ ദാവണി ഉടുക്കാനോ അഥവാ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ അതിലൊരു മോഡേൺ ടച്ച് വരുത്താതെ നമ്മളിപ്പം ഇപ്പോഴുള്ള ആൾക്കാരൊന്നും വസ്ത്രം

ഡ്രസ്സുകളൊന്നും തന്നെ ആരും ഉപയോഗിക്കുന്നില്ല പിന്നെ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ട് അതേ രീതിക്ക് ഉള്ള ഡ്രസ്സുകൾ തുന്നാ തുന്നിയിട്ടുണ്ട് ആ ഒരു നാടൻ ലുക്ക് കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പം ഒട്ടുമിക്ക എല്ലാ എല്ലാവർക്കും ജീൻസും ടോപ്പും അതു പോലെ തന്നെ ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതാണിപ്പം എല്ലാവരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം സിനിമയിലും അതു തന്നെ പണ്ടത്തെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നാടനായിട്ടുള്ള വേഷങ്ങളായാലും സംസാര രീതികളായാലും എല്ലാം നാടനായിട്ടാണ് പക്ഷേ ഇപ്പം സിനിമകളിലും അങ്ങനെ തന്നെയാണ് മോഡേൺ ല ലുക്കുകളും എല്ലാം ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടു പോകുന്നത് ഇതു കണ്ടിട്ടാണ് നമ്മളും അതേ ലെവലിൽ ചിന്തിച്ച് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് പക്ഷെ നമുക്കെപ്പോഴും വസ്ത്രമെന്നു പറയുന്നത് എപ്പോഴും നാടൻ രീതി തന്നെയാണ് നമ്മുടെ സംരക്ഷണത്തിന് നല്ലതു തന്നെയാണ് തോന്നിയിട്ടുള്ളത് അതു പോലെ തന്നെ സിനിമയിൽ എന്താ നമുക്ക് നാടൻ സിനിമകളിലാണെങ്കിൽ സെറ്റും മുണ്ടും അങ്ങനെയുള്ള വേഷങ്ങൾക്കൊപ്പം തന്നെ നാടനും കൊണ്ടു വരുന്നുണ്ട് പക്ഷെ അന്ന് അത് ആ നാടനിൻ്റെ കൂടെ മോഡേൺ ലുക്ക് കൊണ്ടു വരുമ്പോഴും അതൊരു വൃത്തികേട് എന്നുള്ള രീതിയിൽ വന്നിട്ടില്ല അതെന്തുകൊണ്ടെന്നു വെച്ചാൽ അത് നാടൻ്റെ കൂടെ തന്നെയാണ് ഈയൊരു മോഡേൺ ലുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇതു തോന്നത്തില്ല പക്ഷെ ഇന്നിപ്പം നോക്കിക്കഴിഞ്ഞാൽ നാടൻ രീതിയില്ല എപ്പോഴും മോഡേൺ ലുക്ക് തന്നെ അതൊരു വൃത്തികെട്ട രീതിയിൽ തന്നെയാണ് എന്നാൽ അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇപ്പം തന്നെ തുണി സ്ത്രീകളിടുന്ന വസ്ത്രങ്ങളെന്നു പറഞ്ഞാൽ വളരെ മോശപ്പെട്ട വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇപ്പം സ്കൂൾ കുട്ടികളായിക്കോട്ടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ ഇവരെല്ലാം തന്നെ അവർക്ക് യോജിച്ച രീതിയിലുള്ള ഡ്രസ്സുകളല്ല ഉപയോഗിക്കുന്നത്